ഹലോ ആ ആരാണ് നമസ്കാരം ന നമസ്കാരം കെ എസ് ഇ ബി ആ

എന്താണ് എന്താണ് ആ ആ തെച്ചിപ്പുഴ എവിടെ ആണ് വക്കച്ചൻ പള്ളി ഓക്കെ ആ ആ ഓ അതോ സെൻറ് തോമസ് ഹോസ്പിറ്റലിൻ്റെ താഴെ ആ ആ ആ

ചേച്ചി ഇത് ഏത് ട്രാൻസ്ഫോർമർ ആണെന്ന് അറിയാമായിരിക്കുമോ അറിയാമോ എവിടെ അടുത്ത ട്രാൻസ്ഫോർമർ ഏതാണെന്ന് ഉണ്ട് ഉണ്ടുണ്ട് ഓക്കെ ആ ശരി ശരി ആ പ്രശ്നം ഉണ്ട് ആ ഓ ആ അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതാണോ ഇല ഇലക്ട്രിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതാണോ ആ അപ്പോൾ ലൈൻ കിട്ടിയാൽ മതി ആദ്യം ഓഫീസ് ഓഫീസിൽ വന്ന് ഒരു അപേക്ഷ എഴുതി കൊടുക്കണം അതിൻ്റെ കൂടെ ആധാർ കാർഡിൻ്റെയും വീടിൻ്റെ കരമടച്ച രസീതിൻ്റെയും കോപ്പി വീടിന് നമ്പർ ഇട്ടതല്ലേ നമ്പർ വീ വീട്ട് നമ്പർ ഇട്ടതല്ലേ ഉം നമ്പർ ഇട്ടതാണ് ആ അതി അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഓഫീസിൽ വന്നാൽ മതി ഓഫീസിൽ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് തരാം പോസ്റ്റ് ഒ ഒരെണ്ണം മതിയാവും എ എത്ര വേണ്ടിവരും എന്ന് അറിയാമോ നോക്കണോ ആ രണ്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റിന് അയ്യായിരം അയ്യായിരം രൂപ വെച്ച് ആവും ആ ബി പി എൽ ആണോ എ പി എൽ ആണോ എ പി എൽ ആണോ ബി പി എൽ ആണോ ബി പി എൽ ആണ് ആ അപ്പോൾ അത് ഓ കുറവുണ്ട് കുറവുണ്ട് കുറവുണ്ട് കുറവുണ്ട് ആ ഇതിൻ്റെ ഓഫീസിൽ വന്ന് വന്നാൽ ഈ അപേക്ഷയായിട്ട് വന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ചെയ്യാം വന്ന് ഇവിടുന്ന് ഓവർ ഓവർസിയർ വന്ന് ഇൻസ്പെക്ഷന് വരും അവർ വന്ന് നോക്കിയിട്ട് എത്ര പോയിൻറ് അതെല്ലാം നോക്കിയിട്ട് അപ്പോൾ എത്ര പോയിൻറ് ആണ് വലിച്ചിരിക്കുന്നത് അറിയാമോ എത്ര പോയിൻറ് ആണ് ഇട്ടിരിക്കുന്നത് അതിനെ കുറിച്ച് അറിയാമോ ചേച്ചിക്ക് അത് ആ ആ വന്ന് നോക്ക് വേണ്ട വേണ്ട വേണ്ട അല്ല നമ്മൾ ഓഫീസ് ഓഫീസ് ഓഫീസിൽ ഓവർസിയർ വന്ന് നോക്കിക്കോളും ഓഷ് ആ ഷാജിമോൻ ആ ആ അത് അപേക്ഷ കൊടുത്ത് കഴിയുമ്പോൾ അവിടുന്ന് അവിടുന്ന് അവിടുന്ന് വന്ന് വന്നോളും വന്നോളും ആൾ വന്നോളും വന്ന് നോക്കിക്കോളും വേണ്ട വേണ്ട കരം കരം അടച്ച കരം അടച്ച രസീത് കരം അടച്ചത് ആ അത് തന്നെ നാളെ വന്നോ മതി മതി മതി അപേക്ഷ കൊടുത്താൽ അവിടുന്ന് അവർ ഫോർവേഡ് ചെയ്തോളും ആ ഓവർസിയറിന് അവർ കൊടുത്തോളും ആ പുള്ളിക്കാരൻ വന്ന് നോക്കിയിട്ട് അതെ ആ ആ അഞ്ച് ദിവസമാണ് സമയം അഞ്ച് ദിവസം എടുക്കും വന്ന് ഇൻസ്പെക്ഷൻ എടുത്ത് പിന്നെ ആ പോസ്റ്റ് ഇടേണ്ടതല്ലേ പോസ്റ്റ് ഇടാൻ നിങ്ങൾ പൈസ അടച്ച് കഴിഞ്ഞ് പൈസ അടച്ച് കഴിഞ്ഞ് ആ എന്നത്തേക്കാണ് കയറി താമസം വെച്ചിരിക്കുന്നത് അഞ്ചാം തീയതി ആ ആ ഉണ്ടല്ലോ സമയം ഉണ്ടല്ലോ ആ ഓക്കെ ആ ആ ശരി ഓക്കെ താങ്ക് യു